ഞാനേ കുറേ സ്ഥലങ്ങളില് പോയിട്ടുണ്ട് ആദ്യമായിട്ടാണ് പോയത് ഞാന് എൻ്റെ ആങ്ങളയുടെ കൂടെ ബോംബേയിലേക്കാണ് ബോംബെയില് ആങ്ങളയ്ക്ക് അവിടെയാണ് ജോലി ആങ്ങളെയും ഭാര്യയും മക്കളും ഒക്കെ അവിടെയാണ് പഠിക്കുന്നതും താമസിക്കുന്നതും അവിടെ ലോഡ്ജ് സ്വന്തമായിട്ട് ഫ്ലാറ്റെടുത്തിട്ട് അവിടെയാണ് താമസിക്കുന്നത് അപ്പോള് അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലത്ത് അച്ഛനെയും അമ്മയെയുമൊക്കെ കൊണ്ടുപോയി അന്ന് എന്നെ കൊണ്ടുപോകാൻ പറ്റിയില്ല കാരണം അന്ന് ഞാനിവിടെ കുടുംബപ്രാരാബ്ധമായിട്ട് കഴിയുകയായിരുന്നു വീട്ടിലെ ഞാനും എൻ്റെ മക്കളും മാത്രമേയുള്ളു മക്കളുടെ അച്ഛനില്ല അപ്പോള് എനിക്കന്നൊന്നും പോവാൻ പറ്റിയില്ല അവരെ കാര്യങ്ങളെന്നെ അങ്ങനെ നോക്കി നടക്കേണ്ട കാലമായിരുന്നു അവര് കല്യാണം കഴിഞ്ഞതും അവർക്ക് പിന്നെ മറ്റു കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ കല്യാണം കഴിഞ്ഞാലൊക്കെ ഞാനാ അവരുടെ കാര്യം കുടുംബം നോക്കീരുന്നെ ഞാനായിരുന്നു അപ്പോള് അന്ന് നല്ല കാലത്തൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല പിന്നപ്പോള് അറുപത്തി ഒന്നാമത്തെ വയസിലാണ് ഞാനവിടെ പോയത് ബോംബെയില് പോയത് അവിടെ ഒരു രണ്ടു മാസം കാലം ഞാനവിടെ താമസിച്ചു എൻറ്റനിയൻ്റെ എൻറ്റനിയൻറ്റെം ഭാര്യയുടെയും കൂടെ അവിടുന്ന് അവൻ കുറേ സ്ഥലങ്ങള് കാണിച്ചുതന്നു ഞങ്ങളെ ദി ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അവിടെ പോയി അവിടെ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടതൊന്നും ഇപ്പോള് ശരിക്കെനിക്ക് പറയാന് ഓർമയില് കിട്ടുന്നില്ല എന്നാലും ഞാന് കടലിലെ കപ്പലില് ബോട്ടില് യാത്ര ചെയ്തു ബോട്ട് യാത്ര ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ കുറേ അമ്പലങ്ങളിലൊക്കെ പോയി ഒരു മ്യൂസിയത്തില് പോയി അവിടെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു അവിടുന്ന് പിന്നേ പിന്നെ ഞാന് ഗോശാലയുണ്ടവിടെ എന്നുവെച്ചാല് പശുക്കളെ വളർത്തുന്ന സ്ഥലമാണ് ആ പശുക്കളെ വളര്ത്തുന്ന സ്ഥലത്ത് പശുക്കളെ ആരാധിക്കലാണ് അവര് അവിടെ കുറേ ആൾക്കാരൊക്കെയുള്ള ഒരു നമ്മളമ്പലത്തിലൊക്കെ പോകുന്ന പോലെ അവിടെ പശുവിനെ ആരാധിക്കുക പശുക്കൾക്ക് തീറ്റ കൊടുക്കുക തീറ്റകളൊക്കെ കൊണ്ട് കൊടുക്കുക അങ്ങനെ പശുക്കളെ ആരാധിക്കു ഒരു ദൈവമായിട്ട് കാണുക പശുക്കളെ അങ്ങനെയതു വളർത്താൻ വേണ്ടിയിട്ട് പശുക്കളെ ദാനം ചെയ്യുന്നവരും ഉണ്ട് ആ പശുക്കൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ പിന്നെയവിടെ ഈ ദാണ്ടിയാന്ന് പറഞ്ഞൊരുത്സവമുണ്ട് അതില് ആ നാട്ടിലുള്ള ആൾക്കാര് മുഴുവനും കൂടും അവിടെ എല്ലാവരും രാത്രിയായാല് രാത്രിയൊരു ഏഴു മണി എട്ടുമണി ആകുമ്പാഴാണ് ഈ പരിപാടികള് തുടങ്ങുക അങ്ങനോരോ ഗ്രൗണ്ടുണ്ടാകും ആ ഗ്രൗണ്ടില് നിറയെ ആൾക്കാരുണ്ടാവും എന്നിട്ട് നമ്മുടെ നാട്ടില് പറയും ഓരോ കോൽക്കളിയെന്നു പറയുന്നപോലെ ആണത് പാട്ടങ്ങനെ വെയ്ക്കും ആ പാട്ടിനനുസരിച്ച് എല്ലാവരും കളിക്കും ആണും പെണ്ണും കുട്ടികളും ഒക്കെയടക്കം ഉണ്ടാവും ആ കളിയില് പങ്കെടുക്കാന് അങ്ങനെയൊരു പത്ത് പതിനൊന്ന് മണി വരെയുണ്ടാവും അത് അതൊക്കെ കണ്ടു പിന്നെ സിനിമ കാണാൻ പോയി തീയറ്ററില് അതുപോലെ അവിടെ ന്യൂ ബസാര് സാധനങ്ങള് വാങ്ങിക്കുന്ന സ്ഥലം അവിടുന്നൊക്കെ നമ്മൾക്ക് ഇതുപോലെതന്നെ ഇവിടത്തതുപോലെ തന്നെയാണ് സാധനങ്ങളെല്ലാം അവനവനു വേണ്ടതെല്ലാം ഒരു കൊട്ടയിലാക്കിയിട്ട് ഒന്നായിട്ട് ബിൽ പേ ചെയ്തിട്ട് കൊണ്ടുവരാൻ പിന്നെ നമ്മളിവിടുത്തെമാതിരിയുള്ള ഭക്ഷണളൊന്നും അവിടെ കിട്ടില്ല അവിടെ പച്ചരിയാണ് അധികം ചോറിന് ഉണ്ടാവുക സാധാ നമ്മളിവിടത്തെ പോലെ നെല്ലുത്തരി ചാക്കരി അതൊന്നുമുണ്ടാവില്ല മലപ്പുറം ജില്ലയിലേത്തേതുപോലെ രാത്രി ചപ്പാത്തിയാണധികവും കഴിക്കാറ് പോലെ പച്ചരി കൊണ്ടുള്ള ചോറ് ആദ്യമൊന്നും എനിക്കിഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു കുറച്ചു ദിവസം ഭയങ്കര പ്രയാസമായിരുന്നു പച്ചരി ചോറുണ്ണാൻ കഴിയില്ലായിരുന്നു പിന്നെ അങ്ങനെ അങ്ങനെ ശീലമായി പിന്നെ അത് പോലെ ഇങ്ങോട്ട് ഒരു ദിവസം ഞങ്ങള് കടപ്പുറത്ത് പോയി കടപ്പുറത്ത് പോയി അവിടെ വേഷവിധാനം അതുപോലെ തന്നെ വേഷം നമ്മള് ധരിക്കുന്ന പോലത്തെ ഇതൊന്നുമല്ല സാരിയും ബ്ലൗസൊക്കെ ആണെങ്കില് തന്നെ അത് നമ്മുടെ നാട്ടില് ഇവിടത്തെ പോലത്തെ വസ്ത്രമല്ല അതിക്കും ചുരിദാര് അതുപോലെ നിക്കര് വലിയ വലിയ കുട്ടികളൊക്കെ വെറും നിക്കര് ബനിയനൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്

അങ്ങനെയൊരു ഒന്നൊന്നര മാസം രണ്ടു മാസത്തോളം ഞാനവിടെ നിന്നു പിന്നെ തിരിച്ച് ഇങ്ങോട്ട് പോന്നപ്പോള് ഫ്ളൈറ്റിനാണ് പോന്നിട്ടുള്ളത് ഫ്ളൈറ്റിലൊന്നും ഞാൻ യാത്ര ചെയ്യൂന്നൊള്ളെ വിചാരിച്ചതേയല്ല ഞാനവിടുന്ന് ഫ്ലൈറ്റിനാണ് ടിക്കറ്റെടുത്തു തന്നത് ആങ്ങള അവരും വൈഫും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങള് മൂന്നാളും കൂടി ബോംബെയില്നിന്ന് കരിപ്പൂരിലേക്ക് ഫ്ളൈറ്റിന് യാത്ര ചെയ്തു അങ്ങനെയൊരു ഭാഗ്യം ഉണ്ടായി അപ്പോഴും ഫ്ളൈറ്റിലും കടലില്ക്കൂടെ ബോട്ട് യാത്ര ഒരുമണിക്കൂര് കടലില്ക്കൂടെയൊക്കെ യാത്രചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു പിന്നെ പേടിയൊന്നും ഉണ്ടായില്ല അതില് കയറി ഇരുന്നേനേഷം പേടിയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഞാന് കാശി രാമേശരം ആ ഭാഗങ്ങളിലൊക്കെ പോയിട്ടുണ്ട് അവിടെ അമ്പലങ്ങളിലൊക്കെ പോയി പിന്നെ ഞങ്ങൾക്ക് ഒരു ബലി കർമമുണ്ട് ചെയ്യാന് രാമേശരത്ത് പോയിട്ട് പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള അതൊക്കെ ചെയ്തു കടലില് മുങ്ങിക്കുളിച്ചു കുളിച്ചിട്ടൊക്കെ കടലില് മുങ്ങി കുളിച്ചതിനുശേഷമാണ് ആ ക്രിയകള് ചെയ്യല് ഞാനതൊക്കെ ചെയ്തു അവിടുന്ന് പോന്നതില്പിന്നെ ഞങ്ങള് ധനുഷ്ക്കോടിയില് പോയി കടലിൻ്റെ എന്താണ് ശ്രീരാമൻ ശ്രിലങ്കയില്നിന്ന് ശ്രീ ഹനുമാൻ ശ്രീലങ്കയിലേക്ക് എടുത്ത് ചാടിയതാണ് അവിടെ അവസാനം അതൊക്കെ ആദ്യം അവിടെനിന്ന് കാണാമായിരുന്നത്രേ ശ്രീലങ്ക ഇപ്പോള് അവിടെനിന്ന് കാണില്ല പലേതൊക്കെ വന്നത് കൊണ്ട് കടലിങ്ങനെ കണ്ടാല് ആകെ കോരിത്തരിക്കും ശാന്തമായിട്ടിങ്ങനെ പരന്ന് കിടക്കുന്ന ഓളം അതൊന്നുമില്ലാതെ തിരകളൊന്നുമില്ലാതെ നിശ്ചലമായിട്ട് നീലക്കടല് ഞാനവിടെ പോയിട്ടുണ്ട് ആകെ അനിയത്തിയുടെ കൂടെയാണ് അവിടെ പോയിട്ടുള്ളത് കാശി രമേശരം അതുപോലെ തിരുപ്രം കുണ്ട്രം എന്ന് പറഞ്ഞ സ്ഥലം മധുര മീനാക്ഷി ക്ഷേത്രം ആ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിച്ചു അവിടെയൊക്കെ പോയി ഈ തിരുപ്രം കുണ്ട്രം എന്ന് പറയുന്ന സ്ഥലം ഒരു പാറ തുരന്നെടുത്തിട്ടാ ആ തുരംഗത്തിന്റെ ഉള്ളിലാണ് ഈ അമ്പലം വലിയൊരു പാറ അത് മുഴുവനായിട്ട് ഒരു ആർച്ച് പോലെയാണ് അതിൻ്റെ വാതില് ആ വാതിലിനുള്ളിൽക്കൂടെ അതിന്റെ ഉള്ളിലേക്ക് കടന്നാല് മുഴുവൻ സാധാരണ ഇട്ട സ്ഥലം പോലെ നമ്മള് അമ്പലങ്ങളിലൊക്കെ സന്ദർശിക്കുന്ന പോലെ ആ പാറ തുരന്നിട്ടാണ് അതിന്റെ ഉള്ളിലുള്ള ക്ഷേത്രങ്ങളൊക്കെ അതൊക്കെ കണ്ടങ്ങനെ പോന്നു പിന്നെ പഴനി മല കണ്ടിട്ടുണ്ട് പഴനിയില് പോയിട്ടുണ്ട് അതുപോലെ ശബരിമല പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ നല്ല രീയില് എല്ലായിടവും കണ്ട് അങ്ങനെ പോന്നു

ഇതൊക്കെ തന്നെ